ആഹ് അതെയല്ലോ കരന്തുവാല റെസ്റ്ററാൻറ്റ് ആണല്ലോ ആഹ് എവിടുന്നാണ് വിളിക്കുന്നത് ആഹ് ഓക്കെ ഓക്കെ എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് പറയാമോ ഇന്നാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ എത്തിക്കാൻ പറ്റത്തില്ല ആഹ് എത്ര എത്ര പേർക്കുള്ളതാണെന്നും കൂടെയൊന്ന് പറയാമോ ഓക്കെ ഓക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ചോറ് വേറെ ഐറ്റംസ് വേറെ വല്ലതും വേണോ മ് മ് ആഹ് വൈകീട്ട് എത്തിക്കാൻ പറ്റും എഹ് സ്ഥലം എവിടെ കൃത്യം എവിടെയാണ് ആഹ് ഓക്കെ ഓക്കെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതായിരിക്കുമല്ലേ ആ ഓക്കേ ഓക്കേ കാരണമെന്ന് വച്ചാൽ നമ്മൾ ഇവിടെ ആളുകൾ റെഗുലർ ആയിട്ട് വന്ന് കഴിക്കുകയും അവർ നല്ല അഭിപ്രായമൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെടാനാണ് സാധ്യത ആഹ് പിന്നെ ചേച്ചിക്ക് വേറെ ഐറ്റംസ് വല്ലതും വേണോ നമുക്ക് ഇവിടെ വേറെ ഒന്ന് നമ്മുടെ ചെമ്മീനല്ല നമ്മുടെ വലിയ നെയ്മീൻ ഇല്ലേ നെയ്മീൻ റോസ്റ്റൊക്കെയുണ്ട് അത് വല്ലതും വേണോയെന്ന് വേണമെങ്കിൽ ഒന്ന് പറയുകയായിരുന്നെങ്കിൽ അതും കൂടെ നമ്മളിവിടെ എഴുതി വെയ്ക്കാമായിരുന്നു വേണമെങ്കിൽ ഓർഡർ ഇവിടെ എഴുതി വെയ്ക്കാമായിരുന്നു മ് ഓക്കെ ഓക്കെ ചേച്ചി പിന്നെ അതുപോലെ കാളാഞ്ചി ഉണ്ട് കാളാഞ്ചിയൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ നല്ല മുളകിട്ട് നല്ല ഇത് ആക്കിയതുമുണ്ട് വറുത്തതുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് പിന്നെ പൊടി മീനൊക്കെയുണ്ട് ചേച്ചി പിന്നെ മത്തി മത്തി പീരയുണ്ട് മത്തീടെ മുട്ടയുടെയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഞാനൊരു കാര്യം ചെയ്യാം ചേച്ചീടെ ഈ നമ്പറിൽ വാട്സ്ആപ്പ് നമ്പറാണോ ഇത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ബ്രോഷർ ഇട്ടേക്കാം ഇവിടുത്തെ ഇതിൻ്റെയൊക്കെ എല്ലാ വിലയും ഇന്നത്തെ ദിവസത്തെ എന്തുമാത്രം വിലയാ കാര്യങ്ങളാ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം ആ ഓക്കെ ഒന്നും കൂടെ പറഞ്ഞേ കൊഞ്ച് നമുക്ക് കൊഞ്ച് ഫ്രൈ എന്തോ ആ കൊഞ്ച് ഫ്രൈ ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ചേച്ചി നമ്മൾ എപ്പോഴത്തേക്ക് ഇന്ന് വൈകുന്നേരത്തേക്ക് സാമ്പിൾ എപ്പോഴത്തേക്ക് എത്തിക്കേണ്ടത് ആഹ് ഓക്കെ ചേച്ചി ഞാനെന്നാൽ പിന്നെ അങ്ങനെ ഇവിടെയുളള ആൾക്കാരോടൊന്ന് പറയാമേ ഡെലിവറി ബോയിയോട് ഞാൻ പറയാം കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഈ അഡ്രസ്സും കാര്യങ്ങളും എനിക്ക് എൻ്റെ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് ചേച്ചിയെനിക്കൊന്ന് അയച്ചേക്കാമോ ഗൂഗിൾ ഗൂഗിൾ ആ വഴിയിലെ ഗൂഗിൾ ഒന്ന് അയച്ചിട്ടാലും മതി ഓക്കെ ചേച്ചി ഓക്കെ നമുക്കെന്നാൽ വൈകീട്ട് അതിൻ്റെ രാത്രി പിന്നെ അതിനെക്കുറിച്ചെല്ലാം ഇത് വിളിക്കണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് ഞങ്ങളുടെ സാധനങ്ങൾ രുചിച്ച് നോക്കീട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ ആഹ് ഓക്കെ ഓക്കെ താങ്ക് യൂ